ഹൈക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയതെന്ന് വെച്ചാൽ ബീച്ചുകളാണ് ബീച്ചിൽ കടൽ തിരമാലകളെ അവിടുത്തെ എന്താണ് പറയുക വെള്ളത്തിലുള്ള സഞ്ചാരം തിരമാലകളെ നമ്മുടെ അടുത്തേക്ക് തഴുകി വരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് പോവുമ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ വി പിന്നെ എനിക്ക് ഹൈക്കിങ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് മഞ്ഞ് കൂടിയ സ്ഥലത്ത് ഭയങ്കര എ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് പി അതുപോലെ നമ്മുടെ ബീച്ച് സൈഡിൽ സൂര്യൻ അസ്തക് അസ്തമിക്കുമ്പോൾ സൂര്യൻ കടലിലേക്ക് താഴ്ന്ന് പോവുമ്പോൾ ഉള്ള ഒരു ഓറഞ്ച് കളർ പ്രകാശം ഉണ്ട് അതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു കുളിർമ വരാറുണ്ട് നം ആതിൻ്റെ ഒക്കെ ഒരു പിക്ച്ചർ എടുത്ത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മൾ മെമ്മറിയിൽ എന്നും എക്കാലവും നീണ്ട് നിൽക്കുന്ന ഒരു അനുഭൂതി ആയിട്ടൊക്കെ തോന്നാറുണ്ട് പിന്നെ പിന്നെ തോന്നിയിട്ടുള്ളത് ഇഴ ഇതൊക്കെയാണ് ഹൈക്കിങ് ചെയ്യാൻ നമുക്ക് താല്പര്യം തോന്നിയത്